കേരളത്തിൽ പൊതുവേ ജനങ്ങൾ അതാക്കുന്ന സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പകർച്ച വ്യാധികൾ ഭയങ്കര കൂടുതലാണ് നിപ കണ്ടില്ലേ നമുക്ക് വവ്വാലിൽ നിന്നാണ് നിപ പകർന്ന് കിട്ടുന്നതെന്ന് വച്ചാൽ കുറഞ്ഞ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറോണ വന്നതിന് ശേഷം പല തരത്തിലുള്ള അസുഖങ്ങളായിട്ട് സാധാരണക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് ശ്വാസം മുട്ട് ഉണ്ട് പിന്നെ നിപ കാരണമുണ്ട് ചൂട് കാരണമുണ്ട് അങ്ങനെ പല രീതിയിലുള്ള അസുഖം മങ്കി പോക്സ് ഉണ്ട് കോവിഡിൻ്റെ ആ ഒരു നൈറ്റീൻ ഇൻഫ്ളുവൻസ് വളരെ രീതിയിൽ എല്ലാ രീതിയിലും സാധാരണക്കാരിൽ ചെറിയ മക്കളിൽ പോയിട്ട് പ്രയമായവരിൽ ഒരു പ്രാവശ്യം കോവിഡ് പോസിറ്റീവ് വന്നവർക്ക് പിന്നെ നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടൽ പല രീതികളിൽ അസുഖങ്ങൾ അവർക്ക് പിന്നെ എന്താ പറയുക ആരോഗ്യം പണ്ടത്തെ പൂർവ്വ ആരോഗ്യം ആരോഗ്യം അവർക്ക് ഇല്ല പല രീതിയിലവർ ടയേഡാണ് പിന്നെ പകർച്ചവ്യാധികൾ വേറെ പിന്നെ പോഷകക്കുറവ് പോഷകത്തിൻ്റെ ആഹാരത്തിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ എല്ലാ രീതിയിലും പിന്നെ പ്രശ്നങ്ങളുണ്ട് കേരളം കേരളത്തിലെ സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാധാരണ ഉള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും പിന്നെ പകർച്ചവ്യാധികളും പിന്നെ കോവിഡ് വന്നതിന് ശേഷമാണ് കുറച്ചു കൂടെ ആരോഗ്യ വ്യവസ്ഥയിൽ കുറച്ചു കൂടെ മാറ്റം വന്നതും രോഗങ്ങൾ കൂടിയതും എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വ്യക്തിപരമായ തോന്നലതാ കേട്ടോ